പരമ്പരാഗതമായ കായിക ഇനങ്ങളായ കബഡി നമ്മുടെ മറ്റേ ഈ ആശാനും കുട്ടിയും കുട്ടിയും കോലും ഇതൊക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കളിക്കുന്നുണ്ട് അതിന് പക്ഷേ ചില സമയത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായെന്നു വരത്തില്ല ഈ ആശാനും കുട്ടിയാണെങ്കിലും അത് ഒത്തിരി പേരുണ്ടെങ്കിൽ ഒരാൾ കളിച്ചു കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിട്ടേ പിന്നെ ആ ഒന്നുകൂടി റിപ്പീറ്റ് കളി വരണമെങ്കിൽ ഇത്ര ടൈം എടുക്കും അപ്പോഴാണ് നമ്മൾ ആധുനിക കളികളായ ഫുട്ബോള് പഴയ കളികൾ തന്നെയാണ് എന്നാലും ഫുട്ബോള് ക്രിക്കറ്റിലേക്കൊക്കെ നമ്മൾ പോകുന്നത് ക്രിക്കറ്റൊക്കെ തന്നെയാണെങ്കിലും പണ്ടുള്ള നിയമങ്ങൾ തന്നെ ഈ ബാറ്റ് കൊണ്ടുവരുന്നവനായിരിക്കും അവിടെ പ്രാധാന്യം ബോൾ കൊണ്ടുവരുന്ന ഫുട്ബോൾ കളിക്കാൻ ബോളു കൊണ്ടുവരുന്നവനായിരിക്കും അവിടെ പ്രാധാന്യം പിന്നെ ഇവിടെ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ടിൽ കബഡി കളിക്കും കബഡി കളിക്കും കുട്ടിയും കോലും കളിക്കും വെള്ളം പൊങ്ങുമ്പോഴില്ല അല്ലാത്ത സമയത്ത് ഇവിടെയിരുന്ന് കുട്ടിയും കോലും കളിക്കും കുട്ടിയും കോലും കളിക്കും അങ്ങനെ വളരെ രസകരമായ രീതിയിൽ തന്നെ എല്ലാം കളിക്കാൻ പറ്റുന്നുണ്ട് ആസ്വാദ്യകരം ആകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇത് സംരക്ഷിക്കാനായിട്ടല്ല നമ്മളതിനെ വിട്ടുകളയുന്നില്ല സംരക്ഷിക്കാൻ നമ്മൾ വിട്ടുകളയുമ്പോഴല്ലേ അതിനെ കയ്യിൽ നിന്ന് അത് പോകുമ്പോഴല്ലേ അത് സംരക്ഷിക്കണ്ട കാര്യമുള്ളൂ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല നമ്മൾ ഇടയ്ക്ക് ഫുട്ബോളും ക്രിക്കറ്റുമൊക്കെ മടുക്കുമ്പോൾ നമ്മൾ പിന്നേയും കബഡിയിലേക്ക് തന്നെ തിരിച്ചു വരികയും വീഴുകയും അതൊക്കെയൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുകുകയും എല്ലാം ചെയ്തു പിന്നെയും കളിക്കുന്നുണ്ട് പിന്നെ അതിന് ഇവിടുത്തെ തലമൂത്ത ആൾക്കാർ ആര് ഇവിടെ പണ്ട് കളിച്ചുകൊണ്ടിരുന്നവരെ എല്ലാം നമ്മളൊന്നുകൂടി വിളിക്കുകയും അവരെ കളിക്കാൻ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട് അവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ് ഈ ഇവിടെ വന്ന് കളിക്കുന്നത് പിള്ളാരോടൊപ്പം കളിക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് പറയാനും പിന്നെ അവരുടെ ടാറ്റിക്സും എല്ലാം നമുക്ക് പറഞ്ഞുതരാനും ഒക്കെ അവർക്ക് പറ്റുന്നുണ്ട് അവരും നമ്മുടെ നാട്ടിലേക്ക് വന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ പഴയ കളികളെ ഒന്നും നമുക്ക് അറിയാവുന്ന കളികളെ ഒന്നും നമ്മള് വിട്ടുകളയുന്നില്ല എല്ലാം നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ടു കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അതിനുവേണ്ടി പ്രത്യേകം ഒരു ദിവസം നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഏത് ദിവസം കളിക്കണമെന്നൊരു തീരുമാനത്തിലെത്തി ഏത് കളി കളിക്കണം എന്ന് തീരുമാനത്തിലെത്തി പഴയ കളി വേണോ പുതിയ കളികൾ വേണോ വേണോ എന്ന് പറഞ്ഞ് ആ പഴയ കളിയാണ് ഏത് കളി എന്ന് പറഞ്ഞ് കുട്ടിയും കോലുമോ എല്ലാം കുട്ടിയും കോലുമൊക്കെ വളരെ വാശിയോടെ കളിച്ച ദിവസങ്ങളൊക്കെയുണ്ട് അത് ഓരോ പോയിന്റും വിലപ്പെട്ടതാണെന്ന് വിചാരിച്ച് ഇങ്ങനെ കളിച്ച കളിയൊക്കെ ഉണ്ട് പിന്നെ ആശാനും കുട്ടിയും ഒരു കാറ്റടിച്ചനങ്ങിയാൽ പോലും തർക്കിച്ച് അത് മേടിച്ച് അങ്ങനെ വാശിക്ക് കളിച്ച നിര അക്ക് ഇതെല്ലാം ഇവിടെ കളിക്കാറുണ്ട് എല്ലാം നമ്മൾ വളരെ രസകരമായി എടുക്കും ആൾക്കാർ കുറയുന്ന അനുസരിച്ച് ഇപ്പം കുറെ പേരെ ഉൾപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ നമ്മൾ കുറച്ച് പേർ ഒരു ഗെയിം കളിക്കുകയും മറ്റേ ആൾക്കാർ വേറെ ഗെയിം കളിക്കുകയും അങ്ങനെയൊക്കെ കളിക്കാറുണ്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന വടം ഗെയിംസ് എല്ലാം നമ്മൾ ഇടക്കിടയ്ക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ കളിക്കാറുണ്ട് അതൊക്കെ ആ അങ്ങനെ നമ്മുടെ പഴയ തനത് രീതി ഒന്നും നമ്മൾ വിട്ടുകളയുന്നില്ല എല്ലാം സംരക്ഷിക്കുന്നുണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്